വീട്ടിൽ അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ ഇലകളിലെ ഒരു ക്ലോറോഫിൽ പോലെ തന്നെയാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും അത് ഭക്ഷിക്കാനും ഏറ്റോം സ്വീകാര്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനും പറ്റിയ സ്ഥലമാണ് അടുക്കള അപ്പം അടുക്കളയിൽ ഓരോ പാത്രങ്ങൾ അത്രയേറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ജീവിതശൈലിക്കായാലും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനായി കഴിഞ്ഞാലും ജീ നമ്മളുപയോഗിക്കുന്ന പാത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം എൻ്റെ വീട്ടിൽ ഒരുപാട് പാത്രങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോത്തന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കണക്കു പറയാൻ പറയാന്നുണ്ടെങ്കിൽ കുക്കർ അതേപോലെ നമ്മുടെ ചീനച്ചട്ടി ചട്ടകം കയില് പത്തിരി പലക അങ്ങനെ വേണ്ട ഒരുപാട് പാത്രങ്ങൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോത്തന്നെ കുക്കറും കുക്കർ ഉള്ളതിൻ്റെ ഗുണമെന്താന്ന് വെച്ച്കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചേറുണ്ടാക്കാനും അതേപോലെ ബിരിയാണി ഉണ്ടാക്കാനും കറി ഇണ്ടാക്കാനും എന്തിന് നമ്മുടെ ഇറച്ചി എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഇറച്ചി ഉണ്ടാക്കാൻ കുക്കറന്നെ വേണം എന്നാണ് പറയാ കുക്കറും അതേപോലെ ചീനച്ചട്ടിയും ഉണ്ടാവുമ്പോൾ നമുക്ക് ഏറ്റവും ഇരുമ്പിൻ്റെ സത്ത് കൂടുതൽ കിട്ടുക ചീനച്ചട്ടിയിലിണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറയാ എൻ്റെ വീട്ടിലായിക്കോട്ടെ ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുവരുന്ന ഒന്നാണ് മൺപാത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ മൺപാത്രങ്ങളും അതേപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുമാണ് കൂടുതൽ ഉപയോഗിക്കുക അലൂമിനിയം പാത്രങ്ങളുടെയും അതേപോലെ നമ്മുടെ പ്ളേ കോട്ട് ചെയ്ത നമ്മുടെ പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത പാത്രങ്ങളുടെ ഉപയോഗം നല്ലോണം എൻ്റെ വീട്ടിൽ കുറച്ചാണ് ഉപയോഗിക്കുക എൻ്റെ വീട്ടിൽ തീരെ ഇല്ലാ എന്ന് തന്നെ പറയാം നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി ഒരിക്കലും പ്ലാസ്റ്റിക്കോ അതേപോലെ ടെഫ്രോൺ കോട്ട് ചെയ്ത പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല സ്റ്റീലും അതേപോലെ മൺപാത്രങ്ങളും ഇരുമ്പിൻ്റെ പാത്രങ്ങളുമാണ് ഞങ്ങൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കാറ് പലപല പാത്രങ്ങൾ ഇപ്പോത്തന്നെ അപ്പമിണ്ടാക്കാനാണെങ്കിൽ അപ്പച്ചട്ടി വേണം കറിയിണ്ടാക്കാൻ കറിച്ചട്ടി വേണം ചായ ഉണ്ടാക്കാൻ ചായ പാത്രം വേണം കാ ക കയിലിട്ട് കറി ഇളക്കി കോരണം എന്നുണ്ടെങ്കിൽ അതിനു കയില് തന്നെ വേണം ഓരോ പാത്രങ്ങൾക്കും അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെതായ ഫംഗ്ഷൻ അതിന് ഉണ്ട് എന്നതാണ് സത്യം